ഇന്ന് എൻ്റെ ഗ്രാമത്തിൽ നിർമ്മിക്കാൻ പറ്റിയ വീട് ഇഷ്ടിക കൊണ്ടുള്ള വീടാണ് കേരളത്തിലെ ഏറ്റവും ചൂട് കൂടുതൽ അനുഭവപ്പെടുന്ന ഒരു പ്രദേശമാണ് പാലക്കാട് അപ്പോൾ ഈ പാലക്കാടിൽ വെട്ടുകല്ല് അല്ലെങ്കിൽ ഇഷ്ടിക കൊണ്ടുണ്ടാക്കുന്ന വീടിന് ചൂട് കുറവാണ് അതുപോലെതന്നെ വന്യമൃഗങ്ങൾ ഉള്ള ആക്രമണം ഒരു പരിധി വരെ ഈ ഇഷ്ടിക കൊണ്ടുള്ള വീടിന് ചെറുക്കാൻ പറ്റും അതുപോലെതന്നെ ഈ വീട് നിർമ്മിക്കുമ്പോൾ അടുക്കള കക്കൂസ് വാസ്തു ഇതെല്ലാം നമ്മൾ കൃത്യമായിട്ട് നോക്കണം കന്നി മൂലയിൽ തന്നെയായിരിക്കണം നമ്മുടെ അടുക്കള വരേണ്ടത്